ഞാനെൻ്റെ മൊബൈൽ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിൻ്റെ അവസാനത്തെ നാലക്കം എന്ന് പറയുന്നത് നാൽപത്തി രണ്ട് നാൽപത്തി എട്ടാണ് വരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് റീചാർജ് ചെയ്തത് എൻ്റെ ജിയോയാണ് മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപെൻ്റെയാണ് റീചാർജ് എനിക്കത് റീചാർജ് കറക്റ്റ് പ്രോപ്പറായിട്ട് കൺഫോമായോന്നെനിക്കറിയില്ല എനിക്ക് ഈ കൺഫോം മെസ്സേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പേയ്മെൻറ്റ് ഞാൻ ചെയ്തതാണ് ഓൺലൈനാണ് ഞാൻ റീചാർജ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ വിജയകരമായോന്നറിയാൻ ഞാൻ ഇപ്പം എന്താണ് ചെയ്യേണ്ടത് ഞാൻ സൈറ്റിലിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ റിഫ്രഷായിട്ട് വരുന്നില്ല എനിക്ക് തോന്നുന്നത് പേയ്മെൻറ്റ് കറക്ട് ആയിട്ടില്ല പേയ്മെൻറ്റ് കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ വിജയകരമായോന്നറിയാൻ സാധിക്കുന്നില്ല ഫോൺ നമ്പർ ലാസ്റ്റ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ടാണ് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് വരുന്നത് ജിയോയാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വെച്ചാണ് റീചാർജ് ചെയ്തത് ബൈ ഗൂഗിൾ പേ വഴിയാണ് റീചാർജ് ചെയ്തത് വിജയകരമായോന്നറിയില്ല മെസ്സേജോ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല നോക്കുവാണ് ചെയ്യ് പിന്നേയും പിന്നേയും പേജ് റിഫ്രഷ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല പേയ്മെൻറ്റ് പോയതും കാണിക്കുന്നുണ്ട് അതുപോലെ ഉണ്ട് പക്ഷെ സിം റീചാർജ് ആയിട്ടില്ല